ഇതുവരെ ബാങ്കിൽ നിന്നും ലോൺ ഒന്നും എടുത്തിട്ടില്ല പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു ബാങ്ക് ലോൺ കിട്ടണമെങ്കിൽ നൂറ് നൂലാമാലകളാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമണല്ലോ ഒരു ലോൺ കിട്ടണമെങ്കിൽ അതിന് റെക്കമെൻറ്റേഷൻ വേണം നൂ നൂറുകൂട്ടം ഫയൽസ് വേണം പ്രോപ്പർട്ടി ഇത് ആധാരം വേണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ജാമ്യം പോലെ വയ്ക്കണം അല്ലെങ്കിൽ വേറേ ഒരാളെ ആൾ ആൾക്കാർ തന്നെ ജാമ്യം നിൽക്കണം അങ്ങനെ നൂറ് നൂറ് നൂലാമാലകളാണ് ഒരു ലോൺ കിട്ടണമെങ്കിൽ പോലും അങ്ങനെ നോക്കുമ്പോൾ ചെറിയ ചെറിയ ഫൈനാൻസ് സ് കൊടുക്കുന്ന ലോണുകളൊക്കെ കുറച്ചുകൂടെ എളുപ്പമാണ് പക്ഷേ എന്നാലും അവരുടെ പലിശ നിരക്ക് വളരെ കൂടുതലായത് കൊണ്ടാണ് എല്ലാവരും ഡയറക്ട് ബാങ്കിൽ നിന്ന് തന്നെ ലോൺ എടുക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അങ്ങനെ എടുക്കാനൊട്ട്എ ഉള്ള എളുപ്പവഴിയൊന്നും ഇല്ലതാനും വളരെ അധികം ബുദ്ധിമുട്ടാണ് ഒരു ലോൺ ഒരു സാധാരണക്കാരന് ഒരു ലോൺ പാസ് ആയി കിട്ടണമെങ്കിൽ